ഗുഡ് ആഫ്റ്റർനൂൺ നൂർജഹാൻ ആയിരുന്നു താമരശ്ശേരിയിൽനിന്നാണ് വിളി താമരശ്ശേരിയിൽനിന്നാണ് വിളിക്കുന്നത്

ആ എനിക്ക് എൻ്റെ അടുത്ത മാസം എൻ്റെ വെഡ്ഡിംഗ് ആണ് അപ്പം അപ്പം ഫോട്ടോ എടുക്കാൻ ഫോട്ടോഷൂട്ടിന് ആയിട്ട് വിളിച്ചത് ആയിരുന്നു അടുത്ത മാസം ഇരുപതിനാണ്

ആ സേവ് ദി ഡേറ്റ് എടുക്കണം വെഡ്ഡിംഗ് ഫോട്ടോ വേണം ഔട്ട്ഡോർ വേണം അല്ല സേവ് ദി ഡേറ്റ് നമുക്ക് വയനാട്ടിൽ വെച്ച് എടുക്കാമെന്ന് ആയിരുന്നു ആ ഓക്കെ അപ്പം അവിടേക്ക് പോവാം അതിന് അവിടെ മേപ്പാട ഒക്കെ വെച്ചിട്ട് സേവ് ദി ഡേറ്റ് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ട് ഉള്ളത്

പിന്നെ എത്ര ആകും റേറ്റ് ആ ആ ഉണ്ടാകും ആ ഇത് ഉണ്ട് ആ ഓക്കെ എങ്ങനെയാണ് ഫോട്ടോ ആണോ വീഡിയോ ആണോ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഫോട്ടോ വീഡിയോ ഞങ്ങൾക്ക് വീഡിയോ വേണ്ട ഫോട്ടോ മതി നമുക്ക് നല്ല അല്ല സേവ് ദി ഡേറ്റിൻ്റെ വീഡിയോ വേണ്ട ഫോട്ടോ മതി നമുക്ക് ജസ്റ്റ് ആ പിന്നെ ആണ് ഫോട്ടോഷൂട്ട് ആണ് വേണ്ടത് ആ അതെ ആ ആ

സേവ് ദി ഡേറ്റിന് നമ്മൾ ഒരാഴ്ചയോ രണ്ട് ആഴ്ചയോ മുമ്പ് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ട് ഉള്ളത് പിന്നെ വെഡ്ഡിങെന്ന് പറയുമ്പോൾ തലേന്ന് മെഹന്തി ഫംഗ്ഷൻ വരുന്നുണ്ട് അതിന് മുമ്പ് പിന്നെ മറ്റേ എന്താണ് പറയുക ആ ഹൽദി നൈറ്റ് വരുന്നുണ്ട് അങ്ങനെ മൂന്നാല് ദിവസത്തെ ആ മൂന്നാല് ദിവസത്തെ പരിപാടി ഉണ്ട് പിന്നെ മാര്യേജ് കഴിഞ്ഞിട്ട് ഔട്ട്ഡോർ ഉണ്ട് അത് നമുക്ക് പുറത്ത് ഏതെങ്കിലും ബീച്ച് സൈഡിൽനിന്ന് ഒക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ബീച്ച് അതൊക്കെ മുന്നിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ആ ആയിക്കോട്ടെ നിങ്ങളെ സ്ഥലം ഇപ്പോൾ ഇത് എവിടെയാണ് ആണോ ആ ആ ഓക്കേ ആ ആയിക്കോട്ടെ വിളിക്കാം